എനിക്ക് ഇഷ്ടം സാധാരണ സിനിമകളെന്നു പറയുന്നത് നമ്മുടെ നാട്ടിൻ പുറത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ റിയലായിട്ട് ചിത്രീകരിക്കുന്ന സിനിമകളോടാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം കാരണം നമ്മുടെ ജീവിതത്തിൽ സാധാരണ നമ്മുടെ നാട്ടിൻ പുറത്ത് ഉള്ള ജീവിത രീതി അതുപോലെ അഭ്രപാളിയിൽ പകർത്തുന്ന ഒരു സിനിമായോടാണ് ഇഷ്ടം എന്ന് പറയാൻ കാരണം നമ്മൾ നാട്ടിൻ പുറത്തുകാരാണ് ഇപ്പം നമ്മൾ വലിയ വലിയ സിറ്റികളിലൊക്കെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ അറിയുന്നില്ല പകരം നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് സിനിമകൾ നമ്മൾ അതായത് സിനിമകളിലൂടെ നമ്മൾ കാണുന്നത് നമ്മുടെ നാട്ടിൻ പുറത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളാണ് പ്രത്യേകിച്ചു പിന്നെ നമ്മുടെ ഇത് എന്താണ് പറയുക സ്കൂള് നമ്മുടെ നാട്ടിൻ പുറത്തെ സ്കൂളുകൾ പിന്നെ അതുപോലെ നമ്മുടെ വായനശാലകൾ പഴയകാലത്തെ ഹോട്ടലുകൾ അ അങ്ങനെയൊക്കെ കാണുമ്പോൾ റിയലായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് അതേപടി ചിത്രീകരിക്കുന്ന രീതിയിൽ ഉള്ളതാണ് നാട്ടിൻ പുറത്ത് നടക്കുന്ന സംഭവവികാസങ്ങളുടെ ചിത്രീകരണം എന്നു പറയുന്നത് അതിൽ ഒരു ഏറ്റവും വലിയ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട സിനിമ എന്നു പറയുന്നത് മലയാളത്തിൽ പൃഥ്വിരാജ് അഭിനയിച്ചിട്ടുള്ള മാണിക്കക്കല്ല് എന്ന സിനിമയാണ് അവിടെ ഒരു സ്കൂള് അതായത് ഒരു പ്രത്യേക ഗ്രാമത്തിൻ്റെ പേരാണ് അത് അവിടത്തെ ഒരു സ്കൂള് ഇതിങ്ങനെ ഇത് ആരും കുട്ടികളൊന്നും അധികമില്ല ആ സ്കൂളിൽ സ്കൂളിൻ്റെ ദയനീയാവസ്ഥ ഒക്കെ കാണുമ്പോൾ നമുക്ക് വലിയ സങ്കടമാണ് ഉണ്ടാക്കുന്നത് കാരണം നാട്ടിൻപുറത്ത് സ്കൂള് ഉണ്ടാകുക എന്ന് എന്നു പറയുന്നത് വലിയ ഒരു കാര്യമാണ് ആ അവിടത്തെ കുട്ടികൾ വളരെ അധികം മയിലുകൾ താണ്ടി ഇത് വേറെ പട്ടണത്തിലുള്ള സ്കൂളുകളിൽ പഠിക്കാൻ പോകുക എന്നത് ചില ആൾക്കാർക്ക് അത് ദഹിക്കാൻ പറ്റാത്തതാണ് അതായത് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് ആൾക്കാര് നാട്ടിൻപുറത്ത് ജീവിക്കുന്നുണ്ട് കൂലിപ്പണിയൊക്കെ എടുത്തിട്ട് വീട്ടുപണിയൊക്കെ ചെയ്തിട്ട് തൊണ്ട് തല്ലി അതുപോലെ ചെറിയ ചെറിയ നാട്ടിൻ പുറത്തുള്ള ചെറിയ ജോലികളൊക്കെ ചെയ്യുന്ന അവരുടെ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് പട്ടണത്തിൽ പോകാൻ സാധിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള കുട്ടി ഇത് അമ്മമാരുടെ മക്കൾക്കു വേണ്ടിയിട്ടുള്ള ഒരു സ്കൂളാണ് മാണിക്കക ല്ല് എന്നു പറയുന്ന സിനിമയിലെ സ്കൂള് അപ്പോൾ അതിലെ സ്കൂളിൽ പിന്നെ നമ്മുടെ നായകൻ കടന്നു വരുന്നത് നമുക്ക് കാണുമ്പോൾ ആ സ്കൂളിൻ്റെ ദയനീയാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് അതേപടി നമുക്ക് കാണിക്കുന്നുണ്ട് നമ്മുടെ അഭ്രപാളികളിലൂടെ നമുക്ക് കാണിക്കുന്നുണ്ട് അതായത് സ്കൂളിൽ പിന്നെ കുട്ടികളുടെ താന്തോന്നിത്തരം അത് അധ്യാപകരുടെ പിന്നെ അലസത അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ അവിടെ ഒരു അധ്യാപകൻ പൃഥ്വിരാജ് വരുന്നുണ്ട് അപ്പോൾ പൃഥ്വിരാജ് ഇങ്ങനെ പരിസരമൊക്കെ കാണുമ്പോൾ നല്ലോണം വിഷമായി അപ്പോൾ അത് പ്രധാനാധ്യാപകനെ കാണാൻ ചെന്നപ്പോൾ പിന്നെ അദ്ദേഹത്തോട് ഇങ്ങനെ ആരായുന്നു എന്താണ് ഇത് ഇവിടത്തെ അവസ്ഥ ഇതെന്താണ് ഇങ്ങനെ പിന്നെ കുട്ടികൾ എന്താണ് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അപ്പോൾ ആ പ്രധാനാധ്യാപകൻ പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ് കാലങ്ങളോളം ഇങ്ങനെയാണ് ഇവിടെ മാറ്റങ്ങളൊന്നും ഇല്ല കുട്ടികളൊക്കെ ഇങ്ങനെയാണ് അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് ഉച്ചകഞ്ഞി കൊടുക്കുന്ന ആ ഒരു രീതിയും കുട്ടികളോട് പിന്നെ അധ്യാപകർ പെരുമാറുന്നതും കുട്ടികൾ തിരിച്ച് അവരോട് പെരുമാറുന്ന രീതിയൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ടാക്കുന്ന ആ ഒരു രീതിയാണ് നമ്മളെ ആ ഒരു ചിത്രത്തിലൂടെ കാണിക്കുന്നത് അപ്പോൾ അത് മാറാനായിട്ട് ഒരു നല്ല അധ്യാപകനെന്ന നിലയിൽ ആ ഒരു ഇത് സ്കൂളിൻ്റെ സ്ഥിതി വിശേഷങ്ങൾ മാറാനായിട്ട് പരിശ്രമിക്കുന്ന ഒരു അധ്യാപകനാണ് ആദ്യമായിട്ട് തന്നെ അദ്ദേഹം പിന്നെ സമയത്ത് സ്കൂളിൽ വരാൻ പിന്നെ കുട്ടികൾ പരിസരത്തുള്ള കുട്ടികൾ പിന്നെ കിട്ടാനായിട്ട് അവരുടെ വീടുകളിലേക്ക് ചെല്ലുക അപ്പോൾ അങ്ങനെ കുട്ടികളെ വരുത്തുക അതുപോലെ അധ്യാപകർക്ക് തിരിച്ചു അങ്ങോട്ടുള്ള സമീപനം കുട്ടികൾ എങ്ങനെയാണോ കുട്ടികൾ എങ്ങനെയാണോ അധ്യാപകർ പിന്നെ ഇത് അവർ അവരെ സമീപിക്കുന്നത് അതിനെക്കാളും മാരകമായിട്ടാണ് കുട്ടികൾക്ക് തിരിച്ച് ഇങ്ങോട്ട് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ആ ഒരു ചിത്രം ആ ഒരു സിനിമ സ്റ്റോറി വളരെ ഹാർട്ട് ടച്ച് ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ് അതിൽ കുട്ടികളുടെ വീട്ടിലേക്ക് ചെല്ലുന്നു ചില ആൾക്കാർ നല്ല രീതിയിൽ മക്കളെ വിടുക എന്ന് സമ്മതിക്കുന്നു ചില ആൾക്കാരിൽ നിന്ന് കയ്പ്പേറിയ അനുഭവങ്ങളാണ് ആ മാഷിന് കിട്ടുന്നത് അപ്പോൾ പ്രധാനധ്യാപകൻ്റെ വീട്ടിലേക്ക് പോകുന്നു അധ്യാപകമാരുടെ വീട്ടിലേക്ക് പോകുന്നു കുട്ടികളുടെ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന രംഗങ്ങൾ എല്ലാം തന്നെ നമ്മളെ ഹൃദയത്തെ സ്പർശിക്കുന്ന രീതിയിലാണ് കാണിക്കുന്നത് അതുപോലെ ആ ഒരു സ്കൂൾ നാടിൻ്റെ ആ ഒരു ഗ്രാമത്തിൻ്റെ ഭംഗി നമ്മളെ രാവായാലും പകലായാലും ആ ഒരു ഗ്രാമത്തിൻ്റെ ഭംഗിയും അവിടത്തെ മാഷുമാരും പിന്നെ ടീച്ചർമാരും വരുന്ന ഒരു രീതിയും കുട്ടികളുടെ ആ ഒരു വരവും പോക്കും അവരുടെ പെരുമാറ്റവും എല്ലാം നമ്മളെ കൂടുതൽ കൂടുതലാണ് ഒരു സിനിമയിലേക്ക് ആകർഷിക്കുന്നത് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ഞാൻ ഒരു മൂന്ന് നാല് പ്രാവശ്യം കണ്ടിട്ടുണ്ട് കാണാൻ തന്നെ കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് പോലെ തന്നെയാണ് അപ്പോൾ നാട്ടിൻ പുറത്തുകാരുടെ ജീവിത രീതി അതേ പടി അഭ്രപാളിയിൽ പകർത്തുന്ന ചിത്രങ്ങളോടാണ് കൂടുതൽ ഇഷ്ടം അതുപോലെ തന്നെ പിന്നെ ഉള്ളത് നമ്മുടെ പഴയകാലത്ത് ഒരുപാട് സിനിമകളുണ്ട് പേര് എടുത്തുപറയാൻ സാധിക്കാത്ത ഒരുപാട് സിനിമകളുണ്ട് അതുപോലെ സംഗീതം സംഗീതത്തെ സ്നേഹിക്കുന്ന സംഗീതം ഉപാസനയായി കരുതുന്നവരുടെ സിനിമയുണ്ട് അങ്ങനെയുള്ള ഒരു സിനിമയാണ് ഭരതം ഹിസ്ഹൈനസ് അബ്ദുള്ള അങ്ങനത്തെ കുറെ സിനിമകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം ലാലേട്ടനെ പോലെയുള്ള കഥാപാത്രങ്ങളെയാണ് ലാലേട്ടൻ മമ്മൂട്ടി അതുപോലെ സുരേഷ് ഗോപി പിന്നെയുള്ളത് പോലീസ് വേഷങ്ങൾ അഭിനയിക്കുന്ന ആ ഒരു സിനിമകളോടാണ് അത് പ്രത്യേകിച്ചു ഇഷ്ടം ഏകലവ്യൻ പിന്നെ അതുപോലെ സുരേഷ് ഗോപി അഭിനയിച്ചിട്ടുള്ള പോലീസ് സ്റ്റോറികളോടാണ് കൂടുതൽ ഇഷ്ടം ഇപ്പം ലാലേട്ടനായാലും മമ്മൂക്ക ആയാലും അങ്ങനെ ഒരുപാട് പോലീസ് വേഷങ്ങളിലൂടെ അഭിനയിക്കുന്ന സിനിമയുണ്ട് ആ സിനിമകളോടാണ് കൂടുതൽ ഇഷ്ടം അങ്ങനെ എന്താണ് അതിനോട് കൂടുതൽ ഇഷ്ടം എന്ന് പറയാൻ കാരണം ഞാൻ ഒരു പോലീസ് ഓഫീസറെ അതായത് നാടിൻ്റെ രാജ്യത്തിൻ്റെ കാവൽക്കാരൻ ആവുക എന്നത് എൻ്റെ വലിയ ഒരു താല്പര്യമായിരുന്നു പക്ഷെ എനിക്ക് അത് നിർഭാഗ്യവശാൽ അത് സാധിച്ചിട്ടില്ല അപ്പോൾ ഒരു പോലീസ് എന്ന് പറയുന്നത് ആ ഒരു നാട്ടിൻ്റെ സംരക്ഷകനാണ്

അങ്ങനെയോടുള്ള പോസ്റ്റുകളാണ് കൂടുതൽ ഇഷ്ടം അതിനായി പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എനിക്കാാവാൻ സാധിച്ചിട്ടില്ല എന്നിരുന്നാലും അങ്ങനെയുള്ളവരെ കാണുമ്പോൾ ഒരുപാട് ബഹുമാനം തോന്നാറുണ്ട് തൻ്റെ തൻ്റെയും കുടുംബത്തിൻ്റെയും പിന്നെ ഇത് സംരക്ഷണം വിട്ടിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവരുടെ സംരക്ഷകനാവുക എന്ന പ്രഥമ ലക്ഷ്യമാണ് പോലീസും ആർമി ഉദ്യോഗസ്ഥർക്കും ഉള്ളത് അപ്പം അതുകൊണ്ടാണ് അങ്ങനെയുള്ള കഥാപാത്രങ്ങളോട് കൂടുതൽ ഇഷ്ടം അതുപോലെ ലാലേട്ടൻ അഭിനയിച്ചിട്ടുള്ള കീർത്തിചക്ര കുരുക്ഷേത്ര അങ്ങനെയുള്ള സിനിമകളും മമ്മൂക്ക അഭിനയിച്ചിട്ടുള്ള പട്ടാളം അതുപോലെ സുരേഷ് ഗോപിയുടെ പോലീസ് വേഷങ്ങളിലൂടെ അഭിനയിച്ചിട്ടുള്ള ഒരുപാട് ചിത്രങ്ങളുണ്ട് അതും ഒരുപാട് ഇഷ്ടമാണ് അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഈ സിനിമകളോടൊക്കെ ഇഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ നാടിനേയും നമ്മുടെ രാജ്യത്തെയും സംരക്ഷിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഒരു ആർമി ഉദ്യോഗസ്ഥനും അതുകൊണ്ടാണ് അങ്ങനെയുള്ള കഥാപാത്രങ്ങളോടും സിനിമകളോടും കൂടുതൽ ഇഷ്ടം തോന്നുന്നത് പിന്നെ ഒരുപാട് ഹിന്ദി സിനിമകളുണ്ട് നാട്ടിൻപുറത്തെ കാര്യങ്ങൾ ചിത്രീകരിക്കും അതുപോലെ തമിഴ് സിനിമകളുണ്ട് പിന്നെ തമിഴ് സിനിമ എന്ന് പറയുന്നത് ഇത് ആ ഒരു തമിഴിൻ്റെ ആ ഒരു ശൈലി അത് അതേപടി പകർത്തുന്ന ഒരുപാട് സിനിമകളുണ്ട് അങ്ങനെയുള്ള സിനിമകളും എനിക്ക് ഇഷ്ടമാണ് അതുപോലെ ഇപ്പം ഇത്രയൊക്കെ പറയാൻ കാരണം തന്നെ സിനിമകൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതും പിന്നെ പിന്നെ ലേറ്റസ്റ്റ് സിനിമകളോട് താല്പര്യം ഇല്ല കാരണം ഒരു ഒരു എന്താണ് പറയുക ഒരു ഇത് ഒന്നാമത് ആ ഒരു ഡിജിറ്റലൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡി ടി എസ് സിനിമകളാണ് കൂടുതലുള്ളത് അപ്പോൾ അത് വലിയ കഥകളൊക്കെ വലിയ രീതിയിൽ ഇല്ല അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് എല്ലാം കൂടി സമ്മേളിക്കണം പാട്ടായാലും പിന്നെ ഛായാഗ്രഹണമായാലും അത് സ്റ്റോറി ആയാലും പിന്നെ എഡിറ്റിങ് ആയാലും എല്ലാം നല്ല രീതിയിൽ സമ്മേളിക്കുന്നതാണ് അതൊരു നല്ല സിനിമയായിട്ട് മാറുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഈ പറഞ്ഞത് പോലെ നാട്ടിൻപുറത്തെ സിനിമകളും ഇഷ്ടം എന്ന് പറയുന്നത് അത് തമിഴ് ആയാലും ഹിന്ദി ആയാലും ഏത് ഭാഷ ആയാലും ആ നാട്ടിൻപുറത്തെ രീതികൾ ചിത്രീകരിക്കുന്ന സിനിമകളാണ് കൂടുതൽ താല്പര്യം അതുപോലെ പാട്ടുകൾ അതിൽ ഉണ്ടാവുന്ന പാട്ടുകൾ എപ്പോഴും എവർ ഗ്രീൻ സോങുകളാണ് അതൊരിക്കലും നമ്മുടെ മനസ്സിന് മായുകയില്ല ഈ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സിനിമകൾ എന്ന് പറയുന്നത് ആ സിനിമയും നമ്മുടെ ഓർമയിൽ ഉണ്ടാവില്ല ആ പാട്ടും നമ്മുടെ ഓർമയിൽ ഉണ്ടാവില്ല അതിനൊരു അർഥമില്ല പഴയ കാലത്ത് സിനിമകൾക്കും ആ പാട്ടുകൾക്കും ഒരുപാട് അർഥങ്ങളുണ്ട് അതുകൊണ്ട് അത് നമ്മുടെ മനസ്സിൽ നിന്ന് അത് മായുകയില്ല എത്ര യുഗങ്ങൾ കഴിഞ്ഞാലും ആ പാട്ടും ആ സിനിമയും എന്നും നമ്മുടെ മനസ്സിലുണ്ടാകും നമ്മളെന്നും ഓർമ്മിക്കും പാട്ടൊക്കെ നമ്മുടെ ഇത് ചുണ്ടിൽ എപ്പോഴും ഇങ്ങനെ ഉണ്ടാകും ആ ഒരു പാട്ട് പ്രത്യേകിച്ചു നമ്മുടെ ഈ ഒരു ഇത് എന്താണ് പറയാൻ ഇത് ഭരതം സിനിമ അതുപോലെ ലാലേട്ടൻ്റെ ഹിസ്ഹൈനസ് അബ്ദുള്ള അങ്ങനെ പറയുന്ന സിനിമകളിൽ ഒരുപാട് മെലഡി സോങ്ങുകളുണ്ട് അതൊക്കെ ഇന്നും നമ്മുടെ മനസ്സിൽ ഇങ്ങനത്തന്നെ ഇരിക്കും എവിടെ ചെന്നാലും നമുക്ക് ഒരു രണ്ട് വരി എങ്കിലും അതിന് പാടാനായിട്ട് സാധിക്കും അതുപോലെ ആ സിനിമകളുടെ സീനുകൾ നമുക്ക് എപ്പോഴും മനസ്സിൽ ഉണ്ടാകും അപ്പം അതാണ് സാധാരണ സിനിമയും പുതിയ ലേറ്റസ്റ്റ് സിനിമയും തമ്മിലുള്ള വ്യത്യാസവും പഴയ ആ ചിത്രങ്ങൾ ഇഷ്ടപ്പെടാനുള്ള കാരണവും ഇതൊക്കെ തന്നെയാണ് ഇത്രയേ എനിക്ക് പറയാനുള്ളു സിനിമകളെ കുറിച്ച്